നമസ്കാരം ഇത് എൻ എം ആർ ഹോട്ടൽ അല്ലേ ആ ഞാൻ കുറച്ചു മുമ്പ് ഒരു ചിക്കൻ ബിരിയാണിയും ഒരു ഗോബി മഞ്ജുരിയർ അതുപോലെതന്നെ ഒരു ചിക്കൻ ചില്ലിയും പിന്നെയൊരു ഫ്രൈഡ്റൈസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു അരമണിക്കൂർ മുമ്പാണ് ഓർഡർ ചെയ്തത് സ്വിഗ്ഗിയിലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓർഡർ കിട്ടി ഓർഡർ കൊണ്ടുവന്നു ഓർഡർ കൊണ്ടുവന്നു പക്ഷേ ഓർഡർ കൊണ്ടുവന്നതിൽ എനിക്കതിൽ ചില്ലി ചിക്കൻ മിസ്സിംഗ് ആണ് ചില്ലി ചിക്കൻ ഇല്ല അതിൽ ഞാനിത് ഓർഡർ ചെയ്തായിരുന്നു ചില്ലി ചിക്കനും അതുപോലെതന്നെ ഗോപിമഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ് ബിരിയാണിയുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ ചില്ലി ചിക്കൻ മിസ്സിംഗ് ആണ് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതിപ്പോൾ അല്ല ഞാൻ ഒരരമണിക്കൂർ മുമ്പ് വിളിച്ചായിരുന്നു ഇത് വന്നിട്ട് പാലക്കാട് കൊടുന്നരപ്പള്ളി പേയ്മെന്റ് ഞാൻ ഓൺലൈൻ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺലൈൻ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഇന്ന് ഓഫർ ഉണ്ടെന്നു പറഞ്ഞിട്ട് സ്വിഗ്ഗിയിൽ കണ്ടതുകൊണ്ടാണല്ലോ ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഉള്ള സാധനം എനിക്ക് കിട്ടിയിട്ടില്ല ഇനിയും ഇതിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ അതിപ്പോൾ റിട്ടേൺ ചെയ്യണോ എനിക്ക് എങ്ങനെയാണ് അത് ഞങ്ങൾ പുതിയത് കൊടുത്തു വിടുമോ ഓർഡർ പുതിയ ഓർഡർ എടുത്തിട്ട് കൊടുത്തുവിടുമോ അതോ എനിക്ക് എനിക്കിത് ഇതിന്റെ ക്യാഷ് എനിക്ക് തിരിച്ചയച്ചുതരുമോ ഇല്ലില്ല ആ പയ്യൻ പറഞ്ഞത് അവിടുന്ന് തന്നതങ്ങനെ കൊണ്ടുവന്നുവെന്നാണു പറഞ്ഞത് ഇല്ല നിങ്ങളുടെ കവറൊന്നും പൊട്ടിച്ചിട്ടില്ല നിങ്ങൾ തന്നത് അങ്ങനയെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എനിക്കതിൽ ചില്ലി ചിക്കൻ ഇല്ല ആ അതേയതേയതേയതേയതേ ആ അത് അതിലില്ല സംഭവം അതാണ് ആ അങ്ങനെയാണെങ്കിൽ ഇത് എനിക്കിന്നു ഇത് മാറ്റിത്തന്നാൽ മതി ശരി ശരി ശരി ഇതേ ഇതേ അഡ്രസ്സ് തന്നെ ഇതേ അഡ്രസ്സ് തന്നെ ഒന്ന് പെട്ടെന്ന് വേണം കേട്ടോ ഒരുപാട് സമയം വൈകിക്കല്ലേ ഒന്നു പെട്ടെന്ന് വേണം